മലയാളത്തിൽ സംസാരിക്കുമ്പോഴല്ല എഴുതുമ്പോഴ് ബുദ്ധിമുട്ട് വരുന്നുണ്ട് കാരണം ആ പുതിയ ലിപിയാണ് ഞങ്ങൾ പഠിച്ചത് പഴയ ലിപിയിലാണ് അതുകൊണ്ട് പുതിയ ലിപിയിലോട്ട് വരുമ്പോഴ് ഞങ്ങൾക്കൊരുപാട് പ്രയാസങ്ങള് നേരിടേണ്ടി വരുന്നുണ്ട് അത് വീണ്ടും ഞങ്ങള് ഒന്നുംകൂടെ അത് മലയാളത്തിലോ അത് ഒന്നുംകൂടെ വിവരിച്ച് അത് പഠിച്ച് വരുമ്പഴാണ് ഞങ്ങൾക്ക് ഇന്നതാണല്ലോ കാരണം പഴയ ലിപിയിലാണ് ഞങ്ങളെഴുതി കഴിഞ്ഞിരിക്കുന്നെ ഇപ്പഴത്തെയക്കെ പുതിയ ലിപിയാണ് അതുകൊണ്ട് ചെറിയ ഒരു ബുദ്ധിമുട്ടുകള് ഉണ്ട് അത് എന്നാലും ഞങ്ങള് കൂടുതല് വായിക്കുന്നതുകൊണ്ട് ഞാൻ പത്രമൊക്കെ നന്നായിട്ട് വായിക്കും ന്യൂസ് കാണും അതുകൊണ്ട് നമ്മൾക്കത് കൂടുതല് കുഴപ്പങ്ങൾ ഉണ്ടാകത്തില്ല എന്തെങ്കിലും ഒരു മിസ്റ്റേക് വന്നാൽ ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് നോക്കുമ്പോൾ അത് കുഴപ്പമില്ല എന്നാലും ഞാൻ പഴയ ലിപിയിൽ തന്നെയാണ് ഇപ്പഴും എഴുതുന്നത് ഞാനാണെങ്കില് കുറെ എഴുതുന്നതാണ് ഇപ്പം ബൈബിൾ വചനങ്ങളെ വചനങ്ങളൊക്കെ പഠിച്ചു അതിന് ഞങ്ങൾക്ക് സമ്മാനങ്ങൾ കിട്ടി അതെല്ലാം ഞാൻ പഴയ ലിപിയിലാണ് എഴുതുന്നത് പുതിയ ലിപി സത്യം പറഞ്ഞാലെനിക്ക് വരിയേല ആ പഴയ ലിപി തന്നെയേ വരികയുള്ളു അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളെ ഉള്ളു അല്ലാതെ മലയാളത്തിൽ സംസാരിക്കുമ്പോളത്രെ ബുദ്ധിമുട്ടില്ല അത് കാണും എഴുതുമ്പോഴ് ആ പുതിയ ലിപി ഇപ്പഴും വരത്തില്ല ആ പഴയ ലിപിയിൽ തന്നെ ആണ് അത് ഇപ്പഴും ഞാനങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പന്ന് പറഞ്ഞാൽ ബൈബിളിൽ തന്നെ പഴയ ലിപിയുണ്ട് അതുകൊണ്ട് വായിക്കുമ്പോളത്രയും ബുദ്ധിമുട്ട് അതുപോലെതന്നെ പത്രത്തിലാണെങ്കിൽ ഇപ്പം പുതിയ ലിപിയിലും വരുന്നുണ്ട് അതുകൊണ്ട് ബുദ്ധിമുട്ടായിട്ട് അത്രയും തോന്നത്തില്ല പിന്നെ എഴുതുമ്പോഴ് ഒന്നും കൂടെ ശ്രദ്ധിച്ച് അത് നോക്കുകയും എഴുതുകയുമൊക്കെ ചെയ്യുന്നുണ്ട് അത്രയും ബുദ്ധിമുട്ടില്ല പിന്നെ പഴയ ലിപി തന്നെ ഞാനിപ്പഴും ഉപയോഗിക്കുന്നു ആ പഴയ ലിപിയിൽ തന്നെയാണ് അങ്ങോട്ടും കാരണം അതാണെനിക്ക് ഒന്നുംകൂടെ ഇഷ്ടമായിട്ടുള്ളതും വായിക്കാനും എഴുതാനും എല്ലാം എളുപ്പം കാരണം ഞങ്ങള് നന്നായിട്ട് അക്ഷരം വായിക്കുന്നവരാണ്